ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികൾ വെല്ലുവിളികളെന്നു പറഞ്ഞാൽ അവർക്ക് വേറൊരു രാജ്യത്ത് ചെന്നു കഴിയുമ്പം മലയാളം മാത്രം അറികുന്നവർക്ക് ആ ലാംഗ്വേജ് വെച്ചവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കയില്ല വേറെ ലാംഗ്വേജ് കൂടി അറിയാതെ മലയാളികൾ തീരെ കുറവായിരിക്കും ഓരോ സ്ഥലത്ത് ചെന്നു കഴിയുമ്പം പിന്നെ ഒരു ജോലി സ്ഥലത്ത് ചെന്നുകയാണെങ്കിൽ കൂടിയും മലയാളം അല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷും അങ്ങനെയുള്ള ഭാഷകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വരുവത് ഇന്നത്തെ കാലത്തെന്നു പറയുമ്പം മറ്റുള്ളവരെ പോലെയല്ല കൂടുതലാൾക്കാർ മലയാളം ഭാഷ യൂസ് ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ വിചാരം അതുകൊണ്ടുതന്നെ ആ ഭാഷ സംസാരിക്കുന്ന വേറൊരു സ്ഥലത്തു ചെല്ലുമ്പോൾ ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഒന്നും അറിയാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ മലയാളികൾക്ക് മാത്രമാണ് കൂടുതലും വരുന്നത് വേറൊരിടത്തു ചെന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറയുമ്പം മൈക്ക് കിട്ടി കഴിയുമ്പോൾ അവർക്ക് വളരെ അത് വേറെ ലാംഗ്വേജ് കൂടി സംസാരിക്കാനവർക്കു സാധിക്കില്ല അറിയത്തില്ല അപ്പം അവർക്ക് വളരെയധികം ഒരു നാണക്കേട് തന്നെയെന്നു പറയാം മലയാളം സംസാരിക്കാൻ പറയുമ്പം ഇംഗ്ലീഷാണ് സംസാരിക്കേണ്ടതവർ എങ്കിൽ കൂടിയും മലയാളത്തിൻ്റെ ഒരു ഇഷ്ട ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ എന്നും പറഞ്ഞ് വെളിയിൽ ചെല്ലുന്നവർക്ക് പക്ഷെ മലയാള ഭാഷ വളരേയധികം പ്രയോജനപ്പെടുന്നില്ല അതുകൊണ്ട് അവർക്കൊരു വെല്ലുവിളികളെന്നു പറയുമ്പം ജോലി സ്ഥലത്തു ചെന്നാൽ അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ പോലും മലയാളം ലാംഗ്വേജ് വളരെയധികം കുറവാണ് അവിടെ ഇംഗ്ലീഷാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്